ഞാനേ ഒരു ഓൾ കേരള പിന്നെ കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നേ ടു വീലറിൽ ഒരു വൺ മന്ത് കൊണ്ട് ഒരു മാസം കൊണ്ട് കറങ്ങിതീർക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മാസത്തേക്ക് റെൻറിന് സ്കൂട്ടി എടുക്കാം എന്നാണ് എനിക്ക് സ്കൂട്ടി മതി ഞങ്ങൾ രണ്ടുപേരുണ്ട്

അപ്പോൾ നമ്മൾ ഈ വൺ മന്തിലേക്കല്ലേ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഇത് കുറവൊന്നുമില്ലേ അത് ഓക്കേ ഞാ ഞാൻ അടുത്ത മാസം ഇപ്പം ഓക്കെ ഞാൻ ഈ മാസം എന്നാണോ എടുക്കുന്നത് ആ ഡേറ്റ് തൊട്ടിട്ട് അടുത്ത മാസം ആ ഡേറ്റ് വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുപ്പത് ദിവസത്തേക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്യാഷ് തരാം കുഴപ്പമൊന്നുമില്ല നമുക്ക്

ഓക്കെ അപ്പോൾ എനിക്ക് ഇന്നിപ്പം അഞ്ചാം തീയതിയാണ് ഞാനൊരു പത്താം തീയതി പത്താം തീയതിക്ക് പോകാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം കോഴിക്കോടുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കറങ്ങിത്തിരിച്ച് വയനാട് വഴി പിന്നെ കോഴിക്കോട് എത്തിയാൽ മതിയല്ലോ ആ അപ്പോൾ ഓക്കെ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെയൊന്നും എനിക്കില്ല എനിക്ക് നല്ല അത്യാവശ്യം ഉരുണ്ടു പോകാത്ത നല്ല സ്കൂട്ടി വേണം നമ്മൾ എവിടെയെങ്കിലും പോയി പണി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല സ്കൂട്ടി തന്നെ വേണം

ഓക്കെ അപ്പോൾ നമ്മൾ സ്കൂട്ടി തിരിച്ചുതരുമ്പോൾ അധാർ കാർഡിൻ്റെ തിരിച്ചുതരില്ലേ കാരണം ഒറിജിനൽ ആണ് അവിടെ തരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ക്യാഷ് എങ്ങനെയാണ് നേരത്തെ തരണോ ഒരുമിച്ച് ഓക്കെ ഓക്കെ ഓ ഇപ്പോൾ എക്സ്ട്രാ ഹെൽമറ്റ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് പേ ചെയ്യണോ

എന്നാൽ ഞാൻ ഓക്കെ ഞാൻ ഒമ്പതാം തീയതി നൈറ്റ് വിളിക്കാം പത്താം തീയതി മോർണിംഗ് അവിടെയെത്തും ഓക്കെ താങ്ക് യൂ